എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്നു പറഞ്ഞിട്ടുള്ളത് നോവലാണ് നോവലെന്ന് പറയുന്നത് അത് എനിക്ക് ഒരുപാട് വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഞാൻ നോവലുകൾ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ മലയാളം നോവലുകൾ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോവൽ ആടുജീവിതമാണ് ബെന്യാമിൻ്റെ ബെന്യാമിൻ്റെ ആടുജീവിതം എന്നു പറയുമ്പോൾ ഒരു യഥാർത്ഥ ഒരു സംഭവത്തെ വായനക്കാരിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിക്കാൻ ആയിട്ട് ബെന്യാമിന് സാധിച്ചിട്ടുണ്ടായിരുന്നു വളരെ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ അധികഠിനമായ അനുഭവങ്ങൾ വായനക്കാരുടെ ഹൃദയങ്ങളിലേക്ക് പതിപ്പിക്കാനായിട്ട് ബെന്യാമിൻ്റെ ആ ഒരു നോവൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട് മാത്രമല്ല ഞാൻ ഡിഗ്രി പിജി ഇപ്പോൾ ബിഎഡ് ചെയ്യുന്നതുൾപ്പടെ മലയാളത്തിലായതു കൊണ്ടുതന്നെ വായനയെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് വായിക്കാൻ താത്പര്യമുള്ള എല്ലാ നോവലുകളും എൻ്റെ കൈയിൽ കിട്ടുന്ന ഒരുവിധം നോവലുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഇപ്പം ലാസ്റ്റായിട്ട് ഞാൻ വായിച്ചത് അഖിൽ അഖിൽ പി ധർമ്മരാജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ളൊരു നോവലാണ് ഞാൻ ഇത്രയും കാലം വായിച്ച നോവലുകളിൽ നിന്ന് എന്നെ ഏറ്റവും അതിശയപ്പെടുത്തിയിട്ടുള്ള ഒരു നോവലാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞിട്ടുള്ളത് അതിലെ ഒരു പ്രണയം എന്നതിലുപരി സൗഹൃദം അല്ലെങ്കിൽ ബന്ധങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെ ഞാൻ വളരെയേറെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുകയും കൂടാതെ അഖിൽ പി ധർമ്മരാജൻ്റെ അഖിൽ പി ധർമ്മരാജൻ്റെ രചനാശൈലി വളരെ മനോഹരമായിട്ടുള്ളൊരു രചനാശൈലി വായനക്കാരെ കൈയിലെടുക്കാൻ പറ്റുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു രചനാശൈലി ഉപയോഗിച്ചിട്ട് നമ്മുടെ വായനക്കാരെ ആ ഒരു നോവൽ വായിച്ചു തീരുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു ഇറങ്ങുന്ന ഒരു പ്രേക്ഷകൻ്റെ പ്രതീതി വായക്കാർക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു രചനാശൈലി ആയിരുന്നു അഖിൽ പി ധർമ്മരാജൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് ഏതൊരു നോവലായാലും നമ്മളെ അതിലെ ഒരു കഥാപാത്രം ആക്കിയിട്ട് അല്ലെങ്കിൽ അതിലെ ഒരു കഥാപാത്രത്തെ പോലെ ആയിരുന്നു നമ്മളെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് നോവലുകൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഉണ്ടായിട്ടുണ്ട് എല്ലാ എല്ലാ സാഹിത്യ മേഖലകളിലും അല്ലെങ്കിൽ എല്ലാ ഭാഷകളിലെ സാഹിത്യങ്ങളിലും നോവലുകൾ എന്നു പറയുന്നത് വായനക്കാരെ എന്തുകൊണ്ടും ഒരു നല്ല നല്ലൊരു കഥ വായിച്ചവസാനിപ്പിക്കുന്നതിൻ്റെ പ്രതീതി കിട്ടാറുണ്ട്